ഹലോ ആ എന്തുണ്ടെടാ സുഖമല്ലേ എനിക്ക് വളരെ സുഖമാണ് ഞാൻ ഇപ്പം ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു അവധിയൊക്കെയല്ലേ ക്രിസ്മസ് ന്യൂ യറ് ഒക്കെ കഴിഞ്ഞല്ലേയുള്ളൂ അപ്പം നീ എന്ത് ചെയ്യുവാ ഫ്രീയാണോ അ ഹാ ഹാ അത്രയുള്ളൂ അല്ലേ ആ ആ അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഒരു കളി കാണാൻ പോയാലോ എന്ന് ഫുട്ബോള് അപ്പം എങ്ങനാ ആ കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാണാം എവിടാ കൊച്ചിയിലല്ലേ പതിമൂന്നാന്തിയല്ലേ യാ പോവാമല്ലോ എങ്ങനാ ടിക്കറ്റൊക്കെ എങ്ങനാ ഓഫ്ലൈൻ ബുക് ഓഫ്ലൈനാണോ ഓൺലൈനാണോ എങ്ങനാ ബുക്ക് ചെയ്യുന്നത് ആ ഓ പക്ഷേ അവിടെ ചെല്ലുമ്പത്തേക്ക് ടിക്കറ്റ് ബാക്കി കാണുമോ കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയല്ലേ

ഓ കൊള്ളാമല്ലോ ആണല്ലേ രാഹുലൊക്കെ പോയല്ലേ ഞാൻ ഇപ്പം കുറച്ചുനാളായിട്ടിങ്ങനെ കളിയൊന്നും കാണുന്നില്ല അതുകൊണ്ടെനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡ്യ ഇല്ല പിന്നെ ഇനി എന്ത് പ്രതീക്ഷിക്കുന്നു കളി കളിയേപ്പറ്റി ആ ഹാ ഹാ അ ഹാ ഹാ അത് കുഴപ്പം ഇല്ല നമ്മുടെ നമ്മുടെ ടീമല്ലേ പിടിച്ച് കയറിക്കോളും നമ്മുടെ ടീം പൊളിയല്ലേ അതെ ഒഡിഷാ ഓ അ ഒഡിഷ വരും കളിക്കും നമുക്ക് നോക്കാം ഏതായാലും ഒരു കാണേണ്ട കളിയല്ലേ കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ അല്ലേ ഇനി എന്ന് കാണാനാ ഇങ്ങനെത്തെ പിന്നല്ല പിന്നെ എങ്ങനാ ട്രാൻസ്പ്പോട്ടേഷൻ എങ്ങനാ നീ ഇവിടെ കുട്ടിക്കാനത്തില്ലേ ബസ്സിനോ അല്ല ഞാനും ഇവിടുണ്ട് കുട്ടിക്കാനത്തുനിന്ന് പോവുകയാ ഒരുമിച്ച് പോവാം ഒരുമിച്ച് പോവാം അവിടെങ്ങനാ വൈകിട്ടല്ലേ കളി അപ്പോൾ ഇത് എങ്ങനാ മതിയല്ലേ എന്നാൽ രാവിലെത്തന്നെ ഇറങ്ങിയേക്കാം രണ്ട് മണിക്കൂറില്ലേ ട്രാഫിക്ക് ഒക്കെ ആണെങ്കിൽ അങ്ങെത്തണ്ടേ ആ നമുക്കവിടെ നേരത്തെ ചെന്ന് ലഞ്ച് ഒക്കെ കഴിച്ച് ചിൽ ഓ രാത്രിയാവുമല്ലേ അ ഹാ ഹാ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കവിടൊരു ഹോട്ടല് എടുത്ത് നമുക്ക് സ്റ്റേ ചെയ്യാം പരിചയം ഉള്ള ഹോട്ടല് അവിടെ കാണുമായിരിക്കുമല്ലോ പിന്നെ കൊച്ചിയല്ലേ നമ്മുടെ സ്ഥലം അല്ലേ അവിടെയാണോ നമുക്ക് കണ്ട് പിടിക്കാൻ പാട് അപ്പം അങ്ങനെ നമുക്ക് പോയി നോക്കാം അവിടെ കാണുമല്ലോ ഓക്കേ ആ കളി കാണാൻ പോയേക്കാം ആ ആ പിന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ വണ്ടി കൊണ്ടുവരാം നമുക്ക് വണ്ടിക്ക് പോവാം കൂട്ടുകരുടെ വണ്ടിയാ നമുക്കെടുക്കാം കുഴപ്പം ഇല്ല കാറെടുക്കാം കുഴപ്പം ഇല്ല നമുക്ക് പോയിട്ട് രാത്രി ആയാലും വരാം അല്ലെങ്കിൽ ഇനി സ്റ്റേ ചെയ്യണമെങ്കിൽ സ്റ്റേ ചെയ്യാം നമുക്ക് ഒന്നുകൂടെ കംഫോട്ടബ്ൾ ആയിരിക്കുമല്ലോ ഇനിയെങ്ങാനും മഴയൊക്കെ പെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ പണിയാവില്ലല്ലോ മ്മ് മ്മ് മ്മ് അ എന്നാൽപ്പിന്നെ നമുക്കങ്ങനെ ചെയ്യാം അല്ലേ ഓക്കേ അപ്പം എല്ലാം സെറ്റല്ലേ ഓക്കേ എന്നാൽ പിന്നെ ശരി എന്നാൽ ഓക്കേ ബൈ ഓക്കേ